ഞാൻ പാലക്കാട് അവിടെ ഒരു ചെറിയ ഒരു പരുപാടി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക്

ബസ്സിൽ പോണെ ഇഷ്ടമൊന്നും ഇല്ല ഞാൻ ഭർത്താവിൻ്റെ കൂടെ ഓട്ടോറിക്ഷയിലാണ് പോവൽ പക്ഷേ ബസിലും കാറിലും ഒന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഛർദിക്കും പിന്നെ ഇന്ന് ഇപ്പ ആരും ഇല്ല അവിടെ ഒരു പിന്നെ പിറന്നാളുണ്ട് അതിന് പോവാ

ആ ബസിൽ ആ ബസിൽ വന്നാൽ പിന്നെ ഭർത്താവിന് വേറെ വഴിക്ക് പോവാൻ ഉണ്ടായിന്നു അപ്പോൾ പിന്നെ അതാണ് ബസിൽ പോകുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോന്നെ അവടെ എന്താണ് പരിപാടി

ആ അവിടെ ആരൊക്കെ ഉള്ളത് ആ ആ ഇന്ന് തന്നെ തിരിച്ച് ആ ഇന്ന് തന്നെ തിരിച്ചുവരുമോ രാത്രിയോ അപ്പോൾ രാത്രി വേറെ ആരാണ് ഒറ്റയ്ക്ക് പോരുമോ ആ ബാക്കിലോ

വീട്ടിൽ ഭർത്താവുണ്ട് രണ്ട് കുട്ടികളൂണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇല്ലേ ഇല്ല ജോലിയൊന്നും ഇല്ല

ആ ഹാ ഭർത്താവ് വണ്ടിയിലാണ് ആ പണിക്ക് പോകുന്നുണ്ട് ഒരാൾ പഠിക്കുന്നുണ്ട് രണ്ടാൾ പണിക്ക് പോം